ഞാൻ മലപ്പുറത്തുനിന്നാണ് കേട്ടോ വരുന്നത് സാർ എനിക്ക് ഞാൻ ഇത്രയും നാൾ ഇവിടെ മിൽമയിൽ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എനിക്ക് ട്രാൻസ്ഫർ കിട്ടി കുന്നമംഗലം മിൽമയിലേക്ക് അപ്പോൾ അവിടെ അവിടേക്ക് ട്രാൻസ്ഫർ കിട്ടിയതുകൊണ്ട് അവിടെ നിന്ന് ഇത്രയും ദൂരം കുട്ടിക്ക് എന്താണ് പറയുക മലപ്പുറത്തുതന്നെ സ്കൂളിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇവിടെ പെരുങ്ങളം സ്കൂളിൽ ചേർക്കാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഈ അഡ്മിഷൻ എടുക്കുവോ ആ ഇതാകുമ്പോൾ എനിക്ക് മിൽമയിൽ മിൽമയിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ തൊട്ടടുത്ത് ആണല്ലോ സ്കൂൾ അപ്പോൾ വരാനും പോകാനും സൗകര്യം ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആണ് സാറിനെ ഒന്ന് കാണാൻ വന്നത് അപ്പോൾ സിക്സ്ത് സ്റ്റാൻഡേർഡിൽ ആണ് മോൾ പഠിക്കുന്നത് ഇനി ഇപ്പോൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ തന്നെ യൂണിഫോം ബുക്ക് അതൊക്കെ പെട്ടെന്ന് കിട്ടാൻ ബുദ്ധിമുട്ട് ആവുമോ

ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ഞാൻ മാക്സിമം തന്നെ ഈ ആഴ്ച തന്നെ കൊണ്ട്ചേർക്കാൻ നോക്കാം ഇവിടെ ഫീ ഒക്കെ എങ്ങനെയാണ് സർ വരുന്നത് അത് റെഡി ക്യാഷ് ആയിട്ട് അടയ്ക്കണോ അല്ലെങ്കിൽ മാസാമാസം ഓക്കെ ഓക്കെ ആ അതെയതെ നമുക്ക് ഫീ ഒന്നും വിഷയമല്ല നമുക്ക് എന്താണ് പറയുക കുട്ടികളുടെ വിദ്യാഭ്യാസം നല്ല നന്നായി പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ നല്ല എന്താണ് പറയുക നല്ല സംസ്കാരം ഒക്കെ നല്ല ടീച്ചേഴ്സ് ഒക്കെ ആയിരിക്കണം കുട്ടീൻ്റെ വിദ്യാഭ്യാസം ആണ് നമുക്ക് വലുത് ട്യൂഷൻ നമുക്ക് ആ ഓക്കെ

ഇല്ലില്ല പപ്പയുണ്ട് പപ്പ കൊണ്ടുവിട്ടോളും സ്കൂളിലേക്ക് നോ പ്രോബ്ലം ആ ഓക്കെ ഓക്കെ ഞാൻ ഡീറ്റെയിൽസ് എല്ലാവരും ആ എല്ലാം കൊണ്ടുത്തരാം നമ്മൾ പഴയ സ്കൂളിൽ പഠിച്ച ടി സി വാങ്ങിച്ചിട്ടുണ്ട് അത് വേണമല്ലോ ചേർക്കണമെങ്കിൽ ആ ഓ ആ ഓക്കെ ഓക്കെ ഓണത്തിൻ്റെ കിറ്റ് ഒക്കെ കൊടുത്തതാണോ സ്കൂളിൽ ആ അതെയല്ലേ ഓക്കെ ഓക്കെ ശരി